തീർച്ചയായിട്ടും വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് സൈക്കിളുകള് ലാപ്പ്ടോപ്പൊക്കെ ന നൽകുന്നത് ഒരു നല്ലകാര്യമാണ് പ്രത്യേകിച്ചും വളരെയധികം ദൂരെ താമസിക്കുന്ന പെൺകുട്ടികള് വളരെ അധികം ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ക്ലാസ്സിലേക്കൊക്കെ വരാൻ ശ്രമിക്കുന്നത് അപ്പോളവർക്ക് അങ്ങനൊരു സൈക്കിളുകള് പോലുള്ളൊരു ഒരു വഴിയുണ്ടെങ്കില് വരാനായിട്ടൊരു വഴിയുണ്ടെങ്കില് അതെന്തുകൊണ്ടും നല്ലതാണ് അതുപോലതന്നെ അതവരിൽ ആത്മവിശ്വാസം വളർത്താനും സഹായിക്കും അതൊരു നല്ലൊരു എക്സ് എക്സർസൈസും കൂടെയാണ് ഒരു വ്യായാമംകൂടെയാണ് സൈക്കിളുപയോഗിക്കുന്നത് അവരുടെ ആരോഗ്യത്തിനും അത് നല്ലതാണ് അവരുടെ മാനസിക അവസ്ഥയ്ക്ക് അതു നല്ലതാണ് അതുപോലതന്നെ അവർക്ക് കുറച്ചുകൂടെ ഒരു നല്ലൊരു ബോധ്യം അവർക്കത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഒരുപ ആ സൈക്ക്ളുപയോഗിക്കുന്നതു വഴി ആ കായീകാഭ്യാസം ചെയ്യുന്നതുമൂലം അവർക്കതുണ്ടാവുന്നു അതൊരു നല്ല കാര്യമാണ് അതുപോലതന്നെ ലാപ്ടോപ്പ് വളരെയധികം വിലകൂടിയ ഒരു ഇതാണ് പല വീടുകളിലും അത് അവർക്ക് അത് മേടിക്കാനുള്ള സാമ്പത്തിക അവസ്ഥയായിരിക്കെയില്ല അപ്പോള് അങ്ങനെയൊരു സഹായം അവർക്ക് കിട്ടുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കുട്ടികളില് പൈസായ് സമ്പത്തില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്നവർക്ക് ഇതൊരു വലിയ സഹായമാണ് ഇങ്ങനൊരു ചെയ് ചെയ്യുന്നത് അതുവഴി അവരുടെ പഠനത്തില് അവർക്ക് മികവ് വരുത്താൻ സാധിക്കും ആവിശ്യത്തിനുള്ള സാമ സാമഗ്രികളുള്ളപ്പോള് പഠ പഠനത്തിന് ആവശ്യമുള്ളത് ഒക്കെ ഉള്ളപ്പോള് അവർക്ക് കൂടുതല് പഠനത്തില് മികവ് വരുത്താനാകുമെന്നു വിശ്വസിക്കുന്നു അതു നല്ലൊരു പദ്ധതിയാണ്